റേഡിയോയിൽ വാർത്തകൾ കേൾക്കാൻ ഇഷ്ടം തന്നെയാണ് കാരണം അതിൽ വരുന്ന ശബ്ദം ഭയങ്കര സ്മൂത്ത് ആൻഡ് കേൾക്കാൻ നല്ല രസമുണ്ടാവും അതുപോലെ തന്നെ വാർത്തകൾ ആണെങ്കിൽ പോലും ഇപ്പോൾ കളികൾ കായികമൊക്കെ കേൾക്കാൻ കായികത്തിൻ്റെ വാർത്ത കേൾക്കാൻ ഇന്ത്യ ഇന്ത്യൻ്റെ വേൾഡ് കപ്പ് അങ്ങനെയുള്ള ആ ഒരു ടൈമിലൊക്കെ നമ്മൾ റേഡിയോ പഴയ ചായക്കടയിലൊക്കെ റേഡിയോ ഉണ്ടാവും അപ്പോൾ അതിൽനിന്നൊക്കെ ഞാൻ എപ്പോഴോ ഒരിക്കൽ കേട്ടിട്ടുണ്ട് നല്ല രസമാണ് കേൾക്കാൻ ഓ ചാനലുകളൊന്നും എനിക്കങ്ങനെ അറിയില്ല റേഡിയോയിലെ കുറിച്ച് കാരണം നമ്മളുള്ള ടൈമിൽ റേഡിയോ അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചാനലുകളൊന്നും എനിക്കങ്ങനെ അറിയില്ല പക്ഷെ വർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് എപ്പോഴോ ഒരു ഒന്നോ രണ്ടോ തവണ സ്പോർട്സിനെക്കുറിച്ചിട്ടാണ് കേട്ടിട്ടുള്ളത് കേൾക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും സമയം പോവണതൊന്നുമറിയില്ല നല്ല വാർത്തകൾ കേൾക്കാൻ അടിപൊളിയാണ് റേഡിയോയിൽ